എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹെഡ്ഫോൺ ആണ് അപ്പം ഹെഡ്ഫോണിനെക്കുറിച്ച് പറയുവാണെങ്കിൽ മൂന്ന് തരം ഹെഡ്ഫോൺ ഉണ്ട് നമുക്ക് ഇപ്പോൾ വയേർഡ് ഹെഡ്ഫോൺ ഉണ്ട് പിന്നെ നെ നെക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അപ്പോൾ കൂടുതലായിട്ടും പിന്നെ ഇയർപോഡ് ഉണ്ട് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത് നെക്ക് ബാൻഡ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാനും എളുപ്പമാണ് നമ്മുടെ കഴുത്തിൽ വെറുതെ ഇട്ടാൽ മതി അപ്പം എവിടെ ചാടി പോവുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ആ ഹെഡ്ഫോണിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല രീതിയിലുള്ള പലതരം മോഡലുകൾ ഒക്കെ ഉണ്ട് വൺ പ്ലസ്സ് ബോട്ട് പിന്നെ സാംസങിൻ്റെ അങ്ങനെ ഇഷ്ടം പോലെ കമ്പനികളുടെ ഹെഡ്ഫോണുകൾ ഇറക്കുന്നുണ്ട് അതിന് ഓരോന്നിനും ഇപ്പോൾ പൈസയ്ക്കനുസരിച്ച് നല്ല ക്വാളിറ്റിയും ഇപ്പം നോയ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കേൾക്കാനും ബാസ്സും എല്ലാ കാര്യങ്ങളും ഉള്ള ഹെഡ്ഫോൺ ഉണ്ട് ഇപ്പം എന്റെ അടുത്തിരിക്കുന്നത് വൺ പ്ലസിൻ്റെ ആണ് വൺ പ്ലസിൻ്റെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സൗണ്ടും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഇപ്പോൾ പുറമേയുള്ള നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നല്ല രീതിയിലുള്ള ഒരു ഹെഡ്ഫോൺ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് വയേർഡിനെകാട്ടും കുറച്ചും കൂടെ നല്ലത് നെക്ക് ബാൻഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണ് പിന്നെ ഇതിൻ്റെ നെഗറ്റിവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഇയർപോഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചെവിയിൽ വച്ചോണ്ടിരുന്നാ ചെലപ്പൊ വണ്ടിയിലൊക്കെ പോകുവാണെങ്കിൽ ചിലപ്പം ചാടി പൊയിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാനുള്ള ചാൻസ് ഒക്കെ കുറവാണ് അപ്പം ചാടി പോയി പൊയിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അതിന്റെ ക്യാഷ് ഒക്കെ നമുക്ക് പോകും അപ്പം പിന്നെ വയേർഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിനെ മൊബൈലിൽ കണക്റ്റ് ചെയ്തിട്ട് വേണം നമ്മളെ ഇതിലേക്ക് ചെവിയിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാകും കാരണം നമ്മളിപ്പോൾ കൈ കൊണ്ട് അറിയാണ്ട് തട്ടി പോയി കഴിഞ്ഞാൽ ഊരി പോകുവോ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സൗണ്ട് പെ പെട്ടെന്ന് നമുക്ക് കേൾക്കാണ്ട് ഒക്കെ ആയിട്ട് വരും ഇപ്പോൾ പിന്നെ നെക്ക് ബാൻഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാലും ഇത് തന്നെയാണ് പ്രശ്നം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ചെവിക്ക് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും ഇപ്പോൾ ചിലപ്പോൾ ചെവി കേൾവി ശക്തി വരെ കുറഞ്ഞേക്കാം അപ്പം അതുകൊണ്ട് ഇങ്ങനേയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഹെഡ്സെറ്റിനുണ്ട്